പഴയ തലമുറക്കാർ ഇപ്പോഴത്തെ ചെറുപ്പക്കാരേക്കാൾ കൂടുതല് മതവിശ്വാസികളാണ് എന്നാണ് എന്റെ ഒരു വിശ്വാസം അവർ അവര്ക്ക് പ എന്തെന്നാണ് ഇപ്പോഴുള്ള ആള്ക്കാരെക്കാളും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരേക്കാളും ദൈവവിശ്വാസം അവര്ക്കാണ് കൂടുതല് അവർ മാസത്തില് ഒരുദിവസം അമ്പലത്തില് പോവാനായിട്ട് അവർ സമയം കണ്ടെത്തും വീട്ടില് തന്നെയും അവർ വിളക്ക് വെയ്ക്കും അത് കറാക്റ്റായിട്ട് വൈകുന്നേരം വിളക്ക് കത്തിക്കണം അങ്ങനെയുള്ള ചിന്താഗതിക്കാരായിരുന്നു ഇപ്പോൾ പള്ളിയിൽ പോകുന്നവരാണേല് കറക്റ്റായിട്ട് പള്ളി പോകുകയും പ്രാര്ത്ഥിക്കുകയും വീട്ടിലിരുന്നു പ്രാര്ത്ഥിക്കുകയും ഇപ്പോൾ വ്രതങ്ങള് നോമ്പ് അങ്ങനെയൊക്കെയുള്ളതെല്ലാം അവര് കറക്റ്റായിട്ട് നോക്കുകയും ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ആള്ക്കാർ അവര്ക്കൊന്നിനും നേരമില്ല അത് ഒന്നാമത്തെകാര്യം അവര്ക്ക് അമ്പലത്തിലോ പള്ളിയിലോ ഒന്നും പോകാനായിട്ട് നേരമില്ല പിന്നെ പോകുന്നുണ്ടെങ്കിൽ തന്നെ അത് വീട്ടുകാരെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ പള്ളീലുള്ള ആൾക്കാരെ പേടിച്ചിട്ടൊക്കെ ആണ് അവർ വഴക്ക് പറയുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള മതവിശ്വാസകേന്ദ്രങ്ങളില് തന്നെ ഇപ്പോൾ ക്ഷേത്രത്തിലായാലും പള്ളിയിലായാലുമൊക്കെ അവർ പോകുന്നത് തന്നെ ഇപ്പോൾ വീട്ടുകാരേ പേടിച്ചിട്ടൊക്കെയാണ് അല്ലാതെ അവർക്ക് സ്വയം ഇപ്പോൾ ദൈവമുണ്ട് അപ്പോൾ ദൈവവിശ്വാസത്തിന്റെ പുറത്ത് അവർ കൂടുതൽ പേരും പോകുന്നുണ്ടെന്നു എനിക്ക് പറയാൻ പറ്റത്തില്ല നമ്മൾ പോകുന്നവർ നമ്മളിപ്പോൾ കോവിലില് പോകുന്നു അല്ലെങ്കിൽ അമ്പലത്തില് പോകുന്നെന്ന് പറയുമ്പോള് തന്നെ വേറെ ജോലി ഇല്ല ആ അങ്ങനെയൊന്നില്ല ദൈവമില്ല എന്നൊക്കെ പറയുന്നവരാണ് ഇപ്പോഴത്തെ കുട്ടികൾ അപ്പോൾ പണ്ടുള്ളവരങ്ങനെയല്ല എന്ത് ചെയ്യുമ്പോഴും അവരെന്തു പറയുമ്പോഴും ഓ ദൈവമേ എന്നു വിചാരിച്ച് മനസ്സില് വിചാരിച്ചുകൊണ്ടാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ പറയുന്നത് പക്ഷേ ഇപ്പോൾ ഉള്ളവരങ്ങനയല്ല അവര്ക്ക് ഓ ദൈവം ഓ അതിലെന്തിരിക്കുന്നു എന്നു ചിന്തിക്കുന്നവരാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഉള്ളതെന്നാണ് എന്റെ ഒരു ഇത് പഴയതലമുറക്കാരാണ് ചെറുപ്പക്കാരെക്കാളും കൂടുതലായിട്ടും മതവിശ്വാസം കൂടുതല് കൊണ്ടുപോകുന്നത് എന്നാണ് എന്റെ ഇപ്പോൾ ഒരു കാഴ്ചപ്പാട്